എൻ്റെ പ്രദേശത്തുള്ള സിനിമ തീയേറ്ററെന്നു പറയുമ്പോൾ ഒരുപാട് തീയേറ്ററുകളുണ്ട് ഇവിടെ അടുത്തുത്തന്നെ ഒരു സ്നേഹ തീയേറ്ററുണ്ട് പിന്നെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ജയഭാരത തീയേറ്റർ അങ്ങനെ ഒന്നുണ്ട് പിന്നെ അവിടെ നിന്നും ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുറേ തിയേറ്ററുകളാണ് അതായത് പാലക്കാട് ടൗണിൽ കുറേ തിയേറ്ററുകളുണ്ട് പ്രിയദർശിനി തീയേറ്റർ അങ്ങനെ കുറേ തിയേറ്ററുകളുണ്ട് പെട്ടെന്നൊന്നുമിപ്പോൾ ഓർമ്മ വരില്ല നമുക്ക് പറഞ്ഞാൽ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇടക്കൊക്കെ സിനിമകളൊക്കെ കാണാൻ പോകാറുണ്ട് കോളേജിലായിരിക്കുന്ന സമയത്തേ കോളേജിലെ കൂട്ടുകാരുമൊത്ത് സിനിമ കാണാൻ പോയിട്ടുണ്ട് ഫാമിലിയ ഫാമിലിയിൽ എൻ്റെ കസിൻസിൻ്റെ കൂടെ സിനിമ കാണാൻ പോയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിരുന്ന ആളാണ്